നമുക്ക് ചോറിനെ പോലെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമായിട്ട് മാറി കൊണ്ടിരിക്കുകയാണ് വൈദ്യുതി എനിക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റില്ല കറണ്ടില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് കാരണം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മള് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ടിവി ലാപ്ടോപ്പും ടിവിയും ഉപയോഗിച്ചില്ലേലും ഞാനൊക്കെ ഒരു ഇരുപത്തിനാല് മണിക്കൂറും മൊബൈല് യൂസ് ചെയ്യുന്ന ആളാണ് കാരണം ഇരുപത്തി നാല് മണിക്കൂറും എനിക്ക് മൊബൈല് വേണം അപ്പം നമ്മള് കിടക്കണ ഉറങ്ങണ ടൈമിലാണ് ഞാൻ ഫോൺ കുത്തിയിടുന്നത് ബാക്കി ടൈം മുഴുവൻ എന്റടുത്തു ഇതുണ്ടാവും ആ സമയത്തു നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ എല്ലാം അധഃപതനമായിട്ട് പതറിപ്പോണൊരു ഒരു കാഴ്ച നമുക്ക് കാരണം ഓർമ്മയുണ്ടോന്ന് അറിയില്ല പ്രളയത്തിൻ്റെ സമയത്ത് നാലഞ്ചു ദിവസം കറണ്ടില്ലാതെ ഇരുന്നപ്പം ജീവിതം വഴിമുട്ടി നിന്നൊര് അവസ്ഥയായിരുന്നു കാരണം വെള്ളമില്ല നമുക്ക് ടാങ്കില് വെള്ളടിക്കണെങ്കി വെള്ളം വേണം വെള്ളം അടിക്കണെങ്കില് ടാങ്കിലേക്ക് നമുക്ക് വെള്ളം അടിക്കണെങ്കില് വൈദ്യുതി വേണം അതേപോലെ തന്നെ പിന്നെ മിക്സി ഓൺ ആക്കണമെങ്കില് പിന്നെ തേക്കണെങ്കില് നമുക്ക് നനഞ്ഞ ഡ്രസ്സൊക്കെ മഴക്കാലത്തു നനഞ്ഞ ഡ്രസ്സൊക്കെ എടുത്ത് പെട്ടെന്ന് തുടച്ച് തേച്ചു കിട്ടണമെങ്കിൽ നമുക്ക് വൈദ്യുതി വേണ്ടേ എല്ലാ വീട്ടിലും പണ്ടത്തെ പോലെ ചിരട്ട വെച്ച് തേക്കാനുള്ള ഇതിണ്ടാവണമെന്നില്ല എല്ലാവരും വേഗം തേക്കാനും പെട്ടെന്ന് തേക്കാനും അയൺ ബോക്സ് കറണ്ടിൻ്റെ അയൺ ബോക്സ് ആയിരിക്കും കൂടുതല് യൂസ് ചെയ്യുന്നത് അപ്പം ഗ്യാസ് ഇല്ലെങ്കിലും നനഞ്ഞ വിറകാണെങ്കിലും നമുക്ക് ഇൻഡക്ഷൻ കുക്കറും കൊണ്ട് വേവി വെള്ളോക്കെ ഇതാക്കാൻ പറ്റും അപ്പം ഏറ്റവും പിന്നെ നല്ല രീതി ബാധിക്കും നമുക്ക് കറണ്ട് ഇല്ലെങ്കില് ഒരു ദിവസം പിന്നെ വെ നമുക്കിവിടെ വെളിച്ചതിനു വേണ്ടി പിന്നെ എമർജൻസി ഉണ്ട് പിന്നെ ബൾബുണ്ട് കുറച്ചു നേരം പിന്നെ കുത്തിയിട്ട് നമ്മള് കറണ്ട് പോയാലും തെളിയുന്ന ബൾബുകളുണ്ട് പിന്നെ ഇൻവർട്ടറ് ഇല്ല ഇൻവർട്ടറുള്ള വീടുകളൊക്കെ എടുത്തിട്ട് പക്ഷെ നമ്മുടെ വീട്ടില് ഇൻവർട്ടർ ഇല്ല